ഞാൻ രണ്ടാമത് വാങ്ങിയത് ഓൺലൈനിൽ നിന്ന് ഞാൻ വാങ്ങിയത് ഒരു ലിപ്സ്റ്റിക്കും പിന്നെ അതുമാണ് കണ്ണെഴുതുന്ന ഒരു ഐലൈനർ പോലത്തെതാണ് ഞാൻ വാങ്ങിയത് ഐലൈനർ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷെ കാജോള് കാജോള് ഐ ലൈനർ അല്ല കാജൽ പക്ഷേ ലിപ്സ്റ്റിക്ക് ഞാൻ വാങ്ങിയത് നല്ലൊരു കമ്പനിയാണെന്ന് വച്ചിട്ടാണ് വാങ്ങിയത് ഓർഡർ ചെയ്തത് പക്ഷേ ഭയങ്കര എന്താ പറയുക ലിപ്സ്റ്റിക് നമ്മുടെ ചുണ്ടത്ത് ഇടുമ്പോൾ കഴിയുമ്പോൾ അത് എന്താ പറയുക പെട്ടെന്ന് പോകുവാണ് നമ്മൾ വാട്ടർ പ്രൂഫ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് അങ്ങനെയൊക്കെയാണല്ലോ പറയുന്നത് പക്ഷേ നമ്മൾ അത് ചെയ്തു വരുമ്പോൾ അത് ഇട്ടു വരുമ്പോൾ ഭയങ്കര ഡ്രൈ ആവുകയാണ് സ്കിന്നാ ലിപ്പ് ഭയങ്കര ഡ്രൈ ആവുകയാണ് പിന്നെ നമ്മള് എന്താ പറയുക ഒരു പെയിൻറ് അടിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് ഒരു എന്താ പറയുക ഭയങ്കര ക്വാളിറ്റി ഭയങ്കര റിസ്ക് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി